ആ ഹലോ ആരാണ് ഇത് മ്യൂസിക് ടീച്ചറിൻ്റെ മിസ്സാണോ ആ ഞാൻ യദുനന്ദൻ്റെ അമ്മയാനണ് ആ ആ എന്താണ് ഹാ മിസ്സ് വിളിച്ചത് ഫീസിൻ്റെ കാര്യം വല്ലതും പറയാനാണോ ആ അത് ഫീസ്സ് തരാഞ്ഞത് ആദ്യം പൈസ വന്നില്ല പിന്നെ പെരുന്നാളൊക്കെ അല്ലയോ അതുകൊണ്ട് പൈസ വന്നില്ല അതാ വരാഞ്ഞത് വന്നാൽ ഉടനെ തന്നെ തരാം ഫീസ് ഉടനെ തന്നെ അവിടെ കൊണ്ടുവന്നു എത്തിക്കാം ആ അതാണ് പൈസ വരാത്തോണ്ട കൊടുത്ത് വിടാഞ്ഞത് ആ അതുകൊണ്ട് പൈസ വന്നാൽ ഉടനെ അവിടെ എത്തിക്കാം മോൻ്റെ അ മോൻ്റെ പഠിത്തം എങ്ങനെയൊക്കെയുണ്ട് ആ ആ തെരക്കാം മോനോട് ആ അത് തെരക്കാനായിരുന്നു അ ആ അ അ ശരി മിസ്സെ ശരി ശരി ഞാനും പിന്നെ മോൻ്റെ കൂടെത്തന്നെ അങ്ങോട്ട് തന്നെ വരാം മിസ്സ് ആ അ ആ കിട്ടാറക്കെ അ

ആ അ വീട്ടിൽ ആ വീട്ടിൽ വന്നാൽ പഠിക്കുന്നു പഠിക്കുകയൊക്കെ ഉണ്ട് പഠിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല ആ ഇപ്പോഴും മ്യൂസിക്ക് അടിച്ച് കൊണ്ടിരിക്കുകയാണ് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള കുഴപ്പമൊന്നുമില്ല ഇത് വരേയും പിന്നെ സ്കൂളിലെ കാര്യം കൂടെ തിരക്കാനായിരുന്നു ഞാൻ അന്നേരം വിളിച്ചത് ആ ശരി ശരി എന്നാൽ